ഹലോ പറഞ്ഞോ അതെ സിറ്റി ഹോട്ടലാണല്ലോ പറഞ്ഞോ നിൻ്റെ തന്നെ അതേ ബിരിയാണിയ്ക്കകത്ത് ബിരിയാണിയ്ക്കകത്ത് മട്ടൺ അല്ലെങ്കിൽ ചിക്കൻ ഉപയോഗിച്ചാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് പിന്നെ അത് സെപ്പറേറ്റ് മട്ടൻ കറി വേണോ യാ യാ ആ അതുണ്ടാവും അത് തീർച്ചയായിട്ടും ഉണ്ടാവും ഏതാണ് മട്ടൻ കറി മുന്നൂറ്റി നാല്പത് രൂപയാവും പിന്നെ പ്ലെയിൻ റൈസിന് വന്നിട്ട് നൂറ്റി ഇരുപത് രൂപയും പിന്നെ അതിൻ്റെ സലാഡും അതും ഇതുമൊക്കെ പാർസൽ ചാർജ് എന്തുവാ സാറേ സാറിന് അറിയത്തില്ലേ ഇത് ഇപ്പം കാലാവസ്ഥയും വിലകളൊക്കെയൊന്നും അറിയത്തില്ലേ എന്നാൽ വിലയാന്ന ആടിനൊക്കെ ഒരു കിലോ ആടിനെ വേണമെങ്കിൽ ആയിരം രുപയാണ് പുറത്ത് വില കൊടുക്കണം താങ്കൾ ആട് ആട് ആട്ടിൻ്റെ കറി വാങ്ങിക്കാറില്ലേ ഇറച്ചി വാങ്ങിക്കാറില്ലേ ഇത് കോണ്ടിറ്റി ഉള്ള ഞങ്ങൾ കോളിറ്റി ഏറ്റവും ബെസ്റ്റായിരിക്കും കോണ്ടിറ്റി അത് ഞങ്ങളുടെ ഒരു സ്കെയിലുണ്ട് അതനുസരിച്ച് ഞങ്ങൾ തരുന്നത് അതിനൊന്നും വിഷമിക്കേണ്ട നിങ്ങൾക്ക് തൃപ്തിയാവും ഞങ്ങളുടെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ ഇപ്പം

ആ കുഴപ്പമില്ല സാധനമോടുത്തു താങ്കൾ പ്രതീഷിനെ പ്രതീക്ഷിക്കുന്നതിനെക്കാളും ബെറ്ററായിട്ട് ഞങ്ങൾ ചെയ്തിരിക്കും മനസ്സിലായില്ലേ പിന്നെ താങ്കളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവണം ഓഫറുകളൊന്നും ഉണ്ടാവത്തില്ല നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് സപ്പ്ളൈ ചെയ്തു തരും അത്രയേ ഉള്ളു നിങ്ങൾ അതിനു വണ്ടിക്കൂലി ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ പാക്ക് ചെയ്ത് പത്ത് എങ്കിൽ പത്ത് ഇരുപതെങ്കിൽ ഇരുപത് അത് പാക്ക് ചെയ്ത് കറക്റ്റ് സമയത്ത് ഏഹ് ജി എസ് ടി തീർച്ചയായിട്ടും ഉണ്ടാവും അതുണ്ടാവും അത് സർക്കാരിന് കൊടുക്കാനുള്ള പൈസയല്ലേ അത് തീർച്ചയായിട്ടും ഉണ്ടാവും അതെ അതെ അതെ അതെ ബില്ലില്ലാതെ ഞങ്ങൾ കൊടുക്കാറില്ല ബില്ലില്ലാതെ ഞങ്ങൾ കൊടുക്കാറില്ല ബില്ലില്ലാതെ കൊടുത്ത് കഴിഞ്ഞാൽ അത് ബ്ലാക്ക് മണിയായിട്ട് പോവത്തേ ഉള്ളു അത് ബില്ലില്ലാതെ കൊടുക്കത്തില്ല ബില്ല് ബില്ല് ഉൾപ്പെടെ കൊടുക്കത്തുള്ളൂ എന്നാലെ ജി എസ് ടി സർക്കാരിന് പോവുള്ളൂ താങ്കൾക്ക് എന്താ വേണ്ടതെന്ന് വച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഉണ്ടാവും താങ്കൾ താങ്കൾ എത്ര സമയം ഇതെപ്പോഴാണ് വിചാരിക്കുന്നത് ഈ ഓഡർ ഓഡർ എപ്പോഴാണ് വീട്ടിൽ വേണ്ടുന്നത് സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ട് എല്ലാം ഞാൻ പറഞ്ഞു തരാം നമുക്കിപ്പോൾ തൽക്കാലം ഞാൻ സാറ് എത്ര മണിക്കാണ് നിങ്ങൾക്ക് വേണ്ടുന്നത് വീട്ടിൽ എത്ര മണിക്ക് ആ പറഞ്ഞോ പറഞ്ഞോളൂന്നേ അതിനകത്ത് സലാഡുണ്ടാവും അച്ചാറുണ്ടാവും പിന്നെ കറി പ്രത്യേകം പ്രത്യേകം ആയിരിക്കും ചോറ് പ്രത്യേകം ആയിരിക്കും പപ്പടം തീർച്ചയായിട്ടും ഉണ്ടാവും അതൊക്കെ ഞങ്ങളുടെ മെനുവിൽ പെട്ടതാണ് അതൊക്കെ ഉണ്ടാവും മുട്ട ഉണ്ടാവില്ല മുട്ട ഉണ്ടാവില്ല അത് ലോക്കൽ ബിരിയാണി ഉണ്ടാക്കുന്ന കടകളിലെ കിട്ടൂള്ളൂ മുട്ടയൊക്കെ ആയിക്കോട്ടെ എന്നാ സമയത്തെത്തിക്കാം സമയത്തെത്തിക്കാം ഓക്കെ ബൈ